സാധാരണയായി ഹോം സ്റ്റേകൾ എന്നു പറയുന്നത് നമ്മൾ ഒരു ടൂർ പോകുമ്പഴ് ടൂർ പാക്കേജിൽ പോകുമ്പഴ് കുടുംബസമേതം പിക്നിക്ക് പോലെ ദൂരെ ദൂരെ സ്ഥലങ്ങളിലേക്ക് പോകുക ആ സമയത്ത് നമുക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് നമ്മുടെ ഹോട്ടലുകൾ താമസ സൗകര്യങ്ങൾ അതിനുവേണ്ടിയാണ് ഈ ഹോട്ടലുകളൊക്കെ സാധാരണ നല്ല നല്ല സിറ്റികളിൽ ഒക്കെ കാണപ്പെടുന്നു ഹോട്ടലുകളിൽ താമസിക്കുന്നത് മോശമാണെന്ന് പറയാൻ പറ്റില്ല നല്ലതു തന്നെയാണ് പക്ഷേ അവിടെയുള്ള സൗകര്യങ്ങളും അതുപോലെ നന്നായിരിക്കണം ഇപ്പം ഡബിൾ ബെഡ്റൂം ആയാലും സിംഗിൾ ബെഡ്റൂം ആയാലും എല്ലാ റൂമുകളുടെ വൃത്തിയും ശുചിത്വവും അവിടെ നടക്കുന്ന അവരുടെ നമുക്ക് ലഭ്യമാകുന്ന സർവീസുകൾ അറ്റൻഡൻസ് സമയാസമയങ്ങളിലെ അവരുടെ ഉത്തരവാദിത്തോടു കൂടി നമുക്ക് ഭക്ഷണങ്ങൾ സെർവ് ചെയ്യുക അല്ലേ നമുക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി തരിക ഇങ്ങനെയുള്ള നല്ല രീതികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല നല്ലത് തന്നെയാണ് അതുപോലെ തന്നെ എവിടേക്കേലും നമ്മൾ ടൂറ് പോകാൻ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് വേറിട്ട സ്ഥലങ്ങളിലേക്ക് ടൂർ പോവുകയാണ് കാഴ്ചകൾ കാണാൻ പോവുകയാണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ടാക്സി മുതലായവ ഉള്ള സൗകര്യങ്ങളും ഒരുക്കി തരുന്ന ഒരു ഹോട്ടലാണെങ്കിൽ ഹോം സ്റ്റേ നല്ല ഹോട്ടലിലെ താമസിക്കുന്നത് നല്ലതാണ് ഹോം സ്റ്റേയും കുഴപ്പമില്ല നല്ലതു തന്നെയാണ് പക്ഷേ ഈ വക സൗകര്യങ്ങൾ എല്ലാം കാര്യങ്ങളും ആ ഹോട്ടലുകളിൽ ഉണ്ടായിരിക്കണം സാധാരണ ഹോട്ടലുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല അപ്പോൾ സാധാ അപൂർവ്വമായി ഉണ്ടാകുന്ന ഒന്നാണ് ഫുഡ് സർവീസ് അവിടുത്തെ അറ്റൻഡൻസ് ക്ലീനിങ് ഓഫ് റൂംസ് ടോയ്ലറ്റ് അതിൻ്റെ വൃത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഒരു സാധാരണ ഒരു ഹോട്ടലിലോ അല്ലെ ഒരു സ്റ്റാർ ഹോട്ടലിലോ ഉണ്ടാകാറില്ല എന്നാണ് എൻ്റെ അഭിപ്രായം